ഇന്ത്യൻ വ്യ വിനോദ വ്യവസായം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് വൻ പരിണാമമാണ് കണ്ടിട്ടുള്ളത് തികച്ചും മാറ്റങ്ങൾ കൊണ്ടു നിറഞ്ഞ ഈയൊരു വ്യവസായം ഇപ്പം ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് ഉള്ളത് ഈ വികസനത്തിന് കുറച്ച് മെയി മുഖ്യമായി കാരണങ്ങൾ ഉള്ളത് ഇതൊക്കെയാണ് ഒന്ന് സാങ്കേതിക പുരോഗതി ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഇൻറ്റർനെറ്റ് വിപ്ലവം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള സ്ട്രീമിംഗ് പ്ലാറ്റുഫോമുകൾ ഇതൊക്കെ ഈ ഒരു വിപ്ലവത്തിന് വലിയ കാരണമായിട്ടുണ്ട് പിന്നെ ഹൈ ഡഫനിഷൻ ടി വികൾ ഇതൊക്കെ പണ്ട് ഇല്ലാത്തൊരു കാ കാ കാരണമാണ് പലപ്പോഴും വിനോദം എന്നുള്ള ഒരു ഇത് പണ്ട് ഇല്ലാതിരുന്നത് ഇപ്പോൾ പക്ഷേ പല രീതിയിലുള്ള ഉള്ളടക്കങ്ങളുള്ള വിനോദങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അത് ചിലത് പറയുകയാണെങ്കിൽ സിനിമകൾ ടെലിവിഷൻ ഷോകൾ പിന്നെ ഡിജിറ്റൽ സീരീസുകൾ വെബ്ബ് സീരീസുകൾ ഗെയിമുകൾ ഇതൊക്കെ വളരെയധികം പ്രാവർ പ്രാബല്യത്തിലുള്ള ഉള്ളടക്കങ്ങളുള്ള കാര്യങ്ങളാണ് അപ്പോൾ പുതിയ കുറച്ച് കലാരൂപങ്ങളും ഈയടുത്തു വന്നിട്ടുണ്ട് അതായത് ഡാൻസ് റിയാലിറ്റി ഷോകൾ സംഗീതം മത്സരങ്ങൾ ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഈ വിനോദ വ്യവസായത്തിന് വളരെയധികം ഉണർവ് നൽകുന്ന മേഖലകളാണ് പിന്നീടുള്ളത് ടെലിവിഷനും റേഡിയോയിലുമുള്ള മറ്റുപരിപാടികൾ സീരീസുകൾ സീരിയലുകൾ സിനിമകൾ എല്ലാം ഈ ഒരു കുറച്ചു പതിറ്റാണ്ടുകളിൽ വളരെയധികം വികസനമാണ് നേരിട്ടിട്ടുള്ളത് പിന്നെ സോഷ്യൽ മീഡിയ ഫെയ്സ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ ആപ്ലിക്കേഷനുകൾ പോലെയുള്ള പുതിയ നവ മാധ്യമങ്ങൾ വഴിയും വളരെയധികം വികസനമാണ് ഈയൊരു മേഖലയിൽ നടന്നിട്ടുള്ളത് പിന്നെ രാജ്യത്തെ ജന ജനപ്രിയമായ കുറച്ച് വിനോദങ്ങൾ പറയാനാണെങ്കിൽ സിനിമ അതു തന്നെ പല ഭാഷകളിലായി ഇറങ്ങുന്ന പടങ്ങൾ ബോളിവുഡ് ട്ടോളിവുഡ് മോളിവുഡ് തുടങ്ങിയവ നമ്മുടെ നാട്ടുകാർക്ക് വളരെ പ്രിയമാണ് പിന്നെയുള്ളത് സംഗീതം ഡാൻസ് കായികം നൃത്തരൂപങ്ങൾ വേറെ പലതും പിന്നെ ഡിജിറ്റൽ ഗെയിമുകൾ നാടകങ്ങൾ ഇതെല്ലാം വളരെയധികം പ്രാബല്യത്തിൽ ഉള്ള കുറച്ച് കലാരൂപങ്ങളും വിനോദ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്നവയും ആയുള്ള കാര്യങ്ങളാണ്